ഹലോ നമസ്കാരം ഇത് തിരുവനന്തപുരം ജില്ലയിലെ ക്യാബ് അല്ലേ എൻ്റെ പേര് മഞ്ജു എന്നാണ് എനിക്ക് ഞാൻ വിളിച്ചത് ഒരു ക്യാമ്പ് ബുക്ക് ചെയ്യാൻ വേണ്ടി ആയിരുന്നു എൻ്റെ അച്ഛനും അമ്മയും രണ്ട് സഹോദരങ്ങളും തിരുവനന്തപുരം ജില്ലയിലാണ് അവരാണെങ്കിൽ ഒരു വ്യക്തി വ്യക്തിപരമായ ആവശ്യത്തിനുവേണ്ടി വന്നതായിരുന്നു അവർക്ക് കോഴിക്കോടിലേക്ക് മടങ്ങണം അപ്പം ഒരു ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയാവുമ്പം നിങ്ങൾക്ക് അവരെ ചെന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ അച്ഛൻ്റെ പേരെന്നു പറയുമ്പം കുഞ്ഞച്ഛൻ വെട്ടുപറമ്പിൽ അമ്മ മഞ്ജു പി മാത്യു സഹോദരങ്ങൾ ടോം പിന്നെ ഒരു പെങ്ങൾ അനീന ഇത്രയും പേരാണ് ഉള്ളത് നിങ്ങളുടെ കൂലി എത്രയാണ് വരുക ഇത്രയും ദൂരം ഉള്ളതുകൊണ്ട് ഒരു അയ്യായിരം ഒക്കെ ആവുമോ എങ്ങനെയാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്കൊന്ന് നൽകാമോ പിന്നെ പോകേണ്ട വഴി ഞാൻ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം പിന്നെ അഡ്രസ്സ് അഡ്രസ്സ് ഞാൻ എന്നാൽ ഇപ്പം പറഞ്ഞേക്കാം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് എടുത്തോളൂ വെട്ടുപറമ്പിൽ ഹൗസ് കുന്നന്താനം പി ഒ ആലപ്പുഴ പിൻകോഡ് ആറ് എട്ട് ആറ് ഒന്ന് പൂജ്യം ഏഴ് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഇതാണ് എൻ്റെ ഫോൺ നമ്പർ എൻ്റെ ഫോൺ നമ്പറും കൂടെ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഇതാണ് എൻ്റെ ഫോൺ നമ്പർ